എറണാകുളം ജില്ലയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാ തരത്തിലുള്ള മെഡിക്കൽ സൗകര്യങ്ങളും സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്നില്ല എല്ലാവരെയും ഇവിടെ ചികിൽസിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവരുടെ സേവനങ്ങൾ എന്നുവെച്ചാൽ പറയാൻ പറ്റാത്തിടത്തോളം കുറേ ഉണ്ട് നമുക്കിപ്പോൾ എപ്പോഴും നമ്മളെ വയോധിയായി വയോധി മീൻസ് മുതിർന്നവർ മുതിർന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ രോഗം വന്ന് ചികിൽസിച്ച് മരുന്ന് കുടിക്കുകയും അവരുടെ വിട്ടിൽ വന്ന് മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനെ കണ്ടുപിടിക്കാനും ക്യാൻസർ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട് എന്നറിയാനും വേണ്ടിയിട്ടവരെ ചെക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഓരോ കമ്മ്യൂണിറ്റിയിലും ഏതെങ്കിലും പൊതുസ്ഥലത്തൊക്കെ വെച്ച് അതിൻ്റെ ടെസ്റ്റ് നടത്തുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സേവനങ്ങളും അവർ ചെയ്യുന്നുണ്ട് ഇരുന്നിട്ട് അതേപോലെ തന്നെ ഇടയ്ക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അംഗൻവാടി വഴി ബന്ധപ്പെട്ട് ഓരോ വീട്ടിലും അവർക്ക് ആവശ്യമായ ബേസിക് മെഡിസിൻസ് കൊടുക്കായിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നേഴ്സുമാരായാലും വളരെ നല്ല പെരുമാറ്റമാണ് നമുക്ക് അവരുടെ ചിരിച്ച മുഖം മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളായിരുന്നു കേട്ടോ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളെ സഹായിക്കുകയും നമ്മളെ നമ്മുടെ രോഗത്തെ വിവരങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് തിരക്കുകയും ചെയ്ത് വളരെ നല്ല പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്